സംഗീതം എന്റെ കുഞ്ഞിലേ മുതലേ ഞാന് ഉപയോഗിക്കുന്ന ഒരു കലയാണ് സംഗീതം അത് സ്കൂളില് പഠിക്കുന്ന കാലഘട്ടത്തിലായാലും കോളേജില് പഠിക്കുന്ന സമയത്തായാലും ഒക്കെ കലാപരമായിട്ട് ഒരുപാട് മത്സരിക്കാറുള്ള ഒരു വ്യക്തിയാണ് ഞാന് അതുകൊണ്ട് തന്നെ അതിലേറ്റവും കൂടുതൽ മത്സരിക്കുന്ന മേഖല സംഗീതമാണ് അപ്പോള് അന്നും ഇന്നും സംഗീത്തിന് അത് അത്പോലെ തന്നെ സംഗീതത്തിന് അങ്ങനെ അതിന്റെ നില മെച്ചപ്പെടുത്തുവാനായിട്ട് ഉപയോഗിക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് കൂടുതലും ചൂടുവെള്ളം കുടിക്കുക അത്പോലെ തന്നെ ഈ എരിവ് ഉള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക അത്പോലെ തന്നെ മസാലയുള്ള ഭക്ഷണങ്ങൾ കുറയ്ക്കുക പുളിച്ചതായിട്ടുള്ള കാര്യങ്ങൾ കുറയ്ക്കുക അതുപോലെ തന്നെ ഒര്പാടൊരുപാട് ഒച്ചയെടുത്ത് സംസാരിക്കാതിരിക്കുന്നു അത്പോലെ തന്നെ ഒത്തിരി വര്ത്തമാനങ്ങൾ പിന്നെ ഒരുപാട് അലറി സംസാരിക്കുക അലമുറ ഇടണ്ട സാഹചര്യങ്ങളെല്ലാം ഒഴിവാക്കുക ഈ വക കാര്യങ്ങളാണ് കൂടുതലും ശ്രദ്ധിക്കാറ് അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നമ്മള് ഗാര്ഗിള് ചെയ്യോലോ ഉപ്പ് വെള്ളം ഗാര്ഗിള് ചെയ്യുന്നത് ഏറ്റവും കൂടുതല് ശ്രദ്ധിച്ച് അതായത് കവക്ക് നമ്മളിങ്ങനെ കവ കവക്കൊള്ളുകാന്ന് പറയും അത് കൂടുതൽ നമ്മള് ഉപ്പുവെള്ളം നമ്മള് കൂടുതല് നമ്മള് കവക്കൊള്ളുമ്പോള് നമ്മുടെ തൊണ്ട ഏറ്റവും മൃദുലവും ഏറ്റവും സുന്ദരവുമായി മാറുന്നു അത്പോലെ ന അത്കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയില് നമ്മുടെ ഗീതങ്ങള് പാട്ടുകള് ആലപിക്കാനായിട്ട് സാധിക്കുന്നുണ്ട് ഈ വക കാര്യങ്ങളാണ് കൂടുതലും മെച്ചപ്പെടുത്തുന്ന കൂടുതലും ഉപയോഗിക്കുന്നത് അത്പോലെ തന്നെ നല്ല രീതിയില് തന്നെ പാട്ടുകള് പാടുവാനും പാട്ടുകള് പരിശീലിക്കുവാനും അത്പോലെ തന്നെ സാധിക്കുന്നുണ്ട് അപ്പം ഇപ്പം ഈ ചു ദോശ ദോശ ഭക്ഷണങ്ങളെന്നു പറയുന്നത് ഇപ്പോൾ എരിവുള്ള ദോശ ഭക്ഷണങ്ങൾ അത് പോലെ തന്നെ കല്ക്കണ്ടം ഇരട്ടി മധുരം ഇതൊക്കെ ചില സമയങ്ങളില് ഈ കലോത്സവ സ്കൂളിലെ കോളേജിലെയും കലോത്സവ സമയങ്ങളില് കൂട്ടുകാർ തന്ന് ഉപയോഗിച്ചിട്ടുണ്ട് നല്ല സൗണ്ട് പുറത്ത് വരുവാന് ഉള്ള സൗണ്ട് ക്ലിയര് ആകുവാനായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ മൃദുലമായി പരിശീലനം നടത്തുകയും ചെയ്യുന്നുണ്ട് ഭക്ഷണങ്ങളാണ് പ്രധാനമായിട്ട് കുറയ്ക്കുന്നത് ഭക്ഷണ ഭക്ഷണരീതികള് അത്പോലെ തന്നെ തണുപ്പുള്ള ഭക്ഷണങ്ങള് നല്ല രീതിയില് കുറച്ച് ചൂടുള്ള ഭക്ഷണങ്ങള് നല്ല രീതിയില് കഴിച്ചാണ് സംഗീതം ഉപയോഗിക്കുവാന് പാട്ടുകള് പാടുവാനായിട്ട് നില മെച്ചപ്പെടുത്തുന്നത്